ഹലോ ഞാൻ ഇത് തിരുവല്ലയിൽ നിന്ന് നിങ്ങളുടെ ഒരു സർവീസ് ബുക്ക് ചെയ്ത ആൾ ആണേ ഞാൻ ബുക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ആയി ഇത് വരെ ആ കുറേ വട്ടം വിളിക്കാൻ നോക്കി ഡ്രൈവർ ഇതുവരെ റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല ഒരു വട്ടം എടുത്തിട്ട് ഇപ്പോൾ എത്താറായി എന്നൊക്കെ പറഞ്ഞു പക്ഷേ ലൊക്കേഷൻ സർവീസ് നോക്കിയിട്ടും ആൾ ഈ പരിസരത്ത് എങ്ങും വന്നിട്ടില്ല ഞാൻ കുറേ വട്ടം എടുത്തിട്ട് ഡയറക്ഷൻ പറയാൻ നോക്കി ഇപ്പോൾ എനിക്ക് പിന്നെ വന്ന് വന്ന് നല്ല ലേറ്റ് ആയി അതുകൊണ്ട് ഇത് ഞങ്ങൾ അങ്ങ് ക്യാൻസൽ ചെയ്യുവാണ് ക്യാൻസൽ ക്യാൻസൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇനിയും ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് അത്യാവശ്യം ആയിട്ട് പോവുകയും വേണമായിരുന്നു ഇത് കുറേ നേരം ആയിട്ട് വെയിറ്റ് ചെയ്യുവാണ് പറ്റാവുന്ന അത്രയും ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഇനിയും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു